ആ മാഷേ എന്തെല്ലാമാണ് എന്തെല്ലാമാണ് മാഷേ സുഖം തന്നെയാണോ തിരക്ക് ഉണ്ടപ്പാ ഇപ്പോൾ ഓണത്തിൻ്റെ സമയം അല്ലേ അതുകൊണ്ട് അനക്ക് കുറച്ച് തിരക്ക് ഉണ്ട് എന്തേനു ഓ ഓണപരിപാടിക്ക് ആ ആ ആ തിരക്ക് അതെ നമ്മൾ അതിന് ആ അങ്ങനെ ആ ആ അതെ

പിന്നെ ആണെങ്കിൽ പാൻറ്റും ഷർട്ടും ആണോ അല്ലെങ്കിൽ പാൻറ്റും വേണോ അല്ലെങ്കിൽ ഷർട്ട് മാത്രം ആണോ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് ഓക്കെ മുണ്ട് ആ ആ മുണ്ട് മുണ്ടും ഷർട്ടും എടുത്തു അല്ലേ ആ ആ ആ ആ അതിന് മുമ്പേ വരാമെങ്കിൽ എപ്പോഴാണ് നിങ്ങള പരിപാടി എപ്പോഴാണ് ആ ആ അതെ അങ്ങനെ ആണോ അതെ അനക്ക് ഇപ്പോൾ തിരക്കാണ് മാഷ് പറയുമ്പോൾ പിന്നെ എന്നാൽ അപ്പോൾ നിങ്ങൾ അത് ഇവിടെ കൊടുത്താൽ ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് എത്ര ദിവസമാണ് എത്ര ദിവസം കൊണ്ട് വേണം അതെ എന്നാലും എപ്പോഴാണ് വേണ്ടത് ആ ആ ആ ആ ആ ആ ശരി ശരി ഞാൻ എല്ലാം കൂടി ഇരുപത്തിയഞ്ച് കണക്കിന് തരാം നിങ്ങൾക്ക് ആ ഞാൻ നോക്കിയിട്ട് അടുത്ത ഞാൻ ഇരുപത്തിയഞ്ചാം തീയതിക്ക് നിങ്ങൾക്ക് തരാം ഡ്രസ്സിൻ്റെത് ആ

ഇവിടെ എന്താണ് ആണെങ്കിൽ ഷർട്ടും കൊണ്ട് നാളെ വന്നോ നാളെയോ മറ്റന്നാളോ ആയിട്ട് വാ ഞാൻ ആ ശരി ആ പീടികയിൽ തന്നെ വന്നാൽ മതി

പിന്നെ സ്കൂൾ വിട്ടിട്ട് വൈകുന്നേരം വന്നാൽ മതി ഞാൻ പീടികയിൽ തന്നെ ഉണ്ടാവും ശരി മാഷേ ഇന്ന് കുറച്ച് തിരക്ക് ഉണ്ട് ശരി ശരി മാഷേ മതി